ഹലോ ചേച്ചി ആ ഹലോ ആ കേൾക്കാം കേൾക്കണുണ്ട് ആണോ വണ്ടി നമ്പര് എന്തായിരുന്നു ആ ഓക്കെ മാഡം എന്തായിരുന്നു റെഡ് കളർ ഓക്കെ എന്തായിരുന്നു മാഡം വേറെയെന്തെങ്കിലും ചെയ്യാനുണ്ടോ

ആണോ അകം ഒട്ടും ക്ലീനായിട്ടില്ലേ മാഡം ആണോ മാഡം ഏതു ടൈമിലാണ് വണ്ടി കൊണ്ടുവന്നതെന്നൊന്നു പറയുമോ ആണോ മാഡം സാധാരണ എനിക്ക് തോന്നണു ഈ വണ്ടി നേരത്തെ നമുക്ക് തന്നിട്ടുള്ളതാണ് സർവ്വീസിനല്ലേ മാഡം സാധാരണ അതെയതെ മാഡം അത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പയ്യനല്ല അവൻ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പുറത്തുപോയ ടൈമിലാണ് മാഡത്തിൻ്റെ വണ്ടി കൊണ്ടുവന്നത് അപ്പോൾ പുതിയ അതെയതെ മാഡം അത് ഓക്കെ മാഡത്തിൻ്റെ ആ ഒരു സമയം നഷ്ടപ്പെടുത്തിയതിൽ വിഷമമുണ്ട് പക്ഷെ മാഡം സ്ഥിരം വരുന്ന സ്ഥലമല്ലേ മാഡത്തിന് ഇനി ഒന്ന് ഫ്രീയാവുന്ന ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്നുതന്നെ ബോയിനെ വിടാം വിട്ടിട്ട് വണ്ടി എടുത്തിട്ട് നമുക്കത് ക്ലീനാക്കിത്തരാം മാഡം അത് പറ്റിപ്പോയത് പുതിയ പയ്യനായതുകൊണ്ടാണ് ഇല്ല ഇല്ല മാഡത്തിന് ഫ്രീയാകുന്ന ടൈമിൽ വണ്ടി വേണ്ടാത്ത എപ്പോഴാണെന്നു വച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വന്ന് വണ്ടിയെടുത്തിട്ട് കൊണ്ടുത്തരാം മാഡം മാഡത്തിനെ എനിക്കറിയാം വീടറിയാം ആ ഇല്ല ഇല്ല ഇനി തരുമ്പോൾ ഉറപ്പായിട്ടും ഫുള്ള് ക്ലീനാക്കിത്തരാം മാഡം ആണോ ഇല്ല മാഡം എനിക്ക് ആ സമയത്തത് നോക്കാൻ പറ്റിയില്ല കുറേ വേറെയും അത്യാവശ്യം വണ്ടികളുള്ളതുകൊണ്ട് ഞാനവിടെയായിരുന്നു അത്യാവശ്യം ക്ലീനാക്കിയെന്നു വിചാരിച്ചു പുതിയ പയ്യനാരുന്നു ചെയ്തിരുന്നത് അത് സാരമില്ല മാഡമിനി പേയ്മെൻ്റ് ചെയ്യേണ്ട നമ്മളത് ഫുള്ള് ക്ലീനാക്കിത്തരാം മാഡം ശ്രദ്ധിക്കേണ്ടതാരുന്നു മാം വിട്ടുപോയി ആ ആ എനിക്ക് പറ്റിപ്പോയ അത് വിഷമമായി മാഡം പക്ഷെ നമ്മളത് ചെയ്തു തരാം മാഡം ഉറപ്പായിട്ടും മാം പേയ്മെൻ്റ് ചെയ്യേണ്ട നമ്മൾ വന്ന് വണ്ടിയെടുത്തിട്ട് ചെയ്യാം എന്താണെന്നു വച്ചാൽ

ശരി മാഡം മാഡം എപ്പോഴാണ് ഫ്രീയാകുന്നത് അപ്പോൾ പറഞ്ഞാൽ മതി ഇല്ലയില്ല എനിയുണ്ടാവില്ല മാഡം ശ്രദ്ധിച്ചോളാം ശരി മാഡം